ആ അതെ പറഞ്ഞോളൂ ആ ഓക്കെ സാർ പറഞ്ഞോളൂ നമുക്ക് എങ്ങനെ ആണ് എങ്ങനെ ഒക്കെ ആണ് ഏതൊക്കെ ഡ്രസ്സ് ആണ് അമ്മയ്ക്ക് ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ മനസ്സിലായി ഓക്കെ ഫാമിലിക്ക് മൊത്തം വേണം അല്ലേ ആ ഓക്കെ ഡിസ്കൗണ്ട് ഇപ്പോൾ സാറേ നമ്മൾ ഇപ്പം എന്താണ് പറയുക ബയ് വൺ ഗെറ്റ് വൺ ഓഫർ ഒക്കെ ഉണ്ട് അത് ഇപ്പം തൗസൻഡ് ഫൈവ് ഹണ്ട്രഡിന് മുകളിലേക്ക് പേ പേ നമ്മൾ ഇപ്പം വാങ്ങുവാണെങ്കിൽ ബയ് വൺ ഗെറ്റ് വൺ ഓഫർ ഉണ്ട് പിന്നെ ഒരു ത്രീ തൗസൻഡിന് മേലേക്ക് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് അങ്ങനെ ഒക്കെയാണ് നമ്മൾ ഇപ്പം ഓഫേഴ്സ് കൊടുക്കുന്നത് പിന്നെ നമുക്ക് മറ്റേ സമ്മാന കൂപ്പണുകൾ ഉണ്ട് ഫസ്റ്റ് പ്രൈസ് ടു വീലർ ആണ് സെക്കൻഡ് പ്രൈസ് ടി വി പിന്നെ മിക്സി ഗ്രൈൻഡർ അങ്ങനത്തെ സാധനങ്ങൾ ഒക്കെ ആണ് വരുന്നത് മാനന്തവാടിയിൽ തന്നെയാണ് സാർ ഓ സാർ വന്നാൽ മതി നമുക്ക് ആവശ്യം ഉള്ള സാധനങ്ങൾ ഇതാക്കാം പിന്നെ സാറിന് എന്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും വേണ്ട സാധനങ്ങളുടെ ഫോട്ടോസ് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഫോണിൽ സ്റ്റോക്കിൽ ഉള്ള എൻ്റെ വാട്ട്സ്ആപ്പ് ചെയ്തുതരാം സാർ ചൂസ് ചെയ്യുവാണെങ്കിൽ ചെറിയ എന്തെങ്കിലും അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾക്ക് അത് മാറ്റി വയ്ക്കാൻ പറ്റും ഞായറാഴ്ച ഓപ്പൺ ആണ് സാർ ആ ഓക്കെ സാർ എന്തായാലും വരുന്നതിന് മുമ്പ് എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി ഓ ഉറപ്പായും ചെയ്തുതരാം നമുക്ക് എന്തായാലും ചെയ്തുതരാം ഷർട്ട് ഇപ്പം നമുക്ക് സിക്സ് ഡബിൾ നൈൻ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് സാർ കുട്ടികൾ കുട്ടികളുടെ ഒക്കെ ഉണ്ട് കുട്ടികളുടെ നമുക്ക് ഒരു ത്രീ ഡബിൾ നൈൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും ആ പിന്നെ എന്താണ് പറയുക പ്രീമിയം പ്രോഡക്റ്റ്സ് മറ്റേ കമ്പനി സാധനങ്ങൾ വരുന്നുണ്ട് ബ്രാൻഡ് ഐറ്റംസ് അതിന് പേയ്മെൻറ് വ്യത്യാസം ഉണ്ടാവും ഓ ഓക്കെ ഓക്കെ അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ സാർ വന്നിട്ട് നമുക്ക് ചൂസ് ചെയ്യാം അത് ഇവിടെ വന്നിട്ട് നമുക്ക് സെലക്റ്റ് ചെയ്തിട്ട് എടുത്താൽ മതിയല്ലോ

ആ ഓക്കെ സാർ